തീർച്ചയായിട്ടും ഇത്തരം ഹോബി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോട് പറയാനുള്ളത് ഇതൊരു കുഞ്ഞുകളി അല്ല നിങ്ങളിതൊരു വലിയ സംഭവമാണെന്ന് ഓർത്തിട്ട് ചെയ്യണം കാരണം സ്റ്റാമ്പ് ആയാലും നാണയം ആയാലും കല്ല് ആയാലും ശേഖരിക്കുന്നത് ഈ കാലത്ത് വലിയ അംഗീകാരം കിട്ടുന്ന ഒരു കാര്യമാണ് ഇനി ഇപ്പം ഈ കാലത്ത് വലിയ അംഗീകാരം കിട്ടിയില്ലെങ്കിലും നമുക്ക് ഭാവിയിൽ അംഗീകാരം ഉണ്ടാക്കാൻ പറ്റിയ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇതു കുറേക്കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യണം ഇപ്പം സ്റ്റാമ്പ് ഒക്കെ കളക്ട് ചെയ്യുമ്പം ലോക്കൽ ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ സ്റ്റാമ്പുകൾ അതിൽ തന്നെ നമ്മുടെ നാട്ടിലെ ഓരോ മഹാന്മാരുടെ സ്റ്റാമ്പുകൾ വിദേശത്തെ സ്റ്റാമ്പുകൾ അവരുടെ ചരിത്രപരമായ സ്റ്റാമ്പുകൾ അതല്ലാത്തവരുടെ കൃഷിരീതികൾ അവർ അവലംബിക്കുന്ന അത്തരം ഇതുള്ള സ്റ്റാമ്പുകൾ ഇങ്ങനെ പല രീതിയിൽ തന്നെ തരംതിരിച്ച് വയ്ക്കാൻ പറ്റും അങ്ങനെ അത് തരംതിരിക്കണം എന്ന രീതിയിൽ കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അങ്ങനെ ചെയ്യുന്നതാണ് ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഉപകാരം ഉള്ളൂ നല്ലൊരു പർട്ടിക്കുലർ ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ പിള്ളേർ പഠിക്കും അപ്പം അതുകൊണ്ട് അങ്ങനെ കൊടുക്കുക ഇപ്പം കല്ലൊക്കെയാണെങ്കിൽ തന്നെ പല ഷേപ്പിലുള്ള കല്ലുകൾ നമുക്ക് പലതരം ഉപയോഗത്തിൽപ്പെടുത്താൻ പറ്റുന്ന കല്ലുകൾ അങ്ങനെ കല്ലുകളെ ഇനം തിരിച്ച് വെക്കുന്നത് കുട്ടികളിൽ ഇങ്ങനെ സെലെക്റ്റ് ചെയ്യുക അതിനെ ഓർഗനൈസ്സ് ചെയ്യുക എന്ന ഒരു സ്കില്ല് അവർ അറിയാതെ അവരുടെ ഇൻട്രസ്റ്റിങ് ആയ രീതിയിൽ ഡെവലപ്പ് ചെയ്യും അപ്പം അതുകൊണ്ട് അത് വളരെ നല്ലതാണ് അത്തരം ഉപദേശങ്ങളാണ് ഈ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആരാണെങ്കിലും കുട്ടികൾ മാത്രമല്ല വലിയവർക്കാണെങ്കിലും അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും അത് നമുക്ക് കുറേക്കൂടി അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കും പിന്നെ രണ്ടാമത്തെ കാര്യം ഇതൊക്കെ കുഞ്ഞിലേ തുടങ്ങുന്നതാണ് നല്ലത് കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷനോ ആത്മാർത്തതയോ ഒന്നും പിന്നെ കാലം നമ്മൾ കൊടുക്കണം എന്നില്ല അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ ചെയ്ത് തുടങ്ങുന്ന കാലത്ത് തന്നെ ഈ രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുക എതെങ്കിലും ഒരു പ്രത്യേകരീതി ഇപ്പം ഒരു ഉദാഹരണത്തിന് ഒരു സ്റ്റാമ്പ് കളക്ഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒന്നാമതായിട്ട് അത് രാജ്യങ്ങൾ തിരിച്ച് എടുക്കാം രണ്ട് നമ്മൾ രാജ്യങ്ങളിൽ തന്നെ അവിടുത്തെ ചരിത്ര പുരുഷന്മാരുടെ അല്ലെങ്കിൽ വനിതകളുടെ സ്റ്റാമ്പ്കൾ ഒരു ശേഖരമാക്കി മാറ്റാം അവിടുത്തെ കൃഷികളും ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റാമ്പുകളെ അടുത്ത സെക്ഷനായിട്ട് വയ്ക്കാം അവിടുത്തെ ചരിത്ര സ്മാരകങ്ങളെ മൂന്നാമതൊരു സെക്ഷനാക്കാം ടൂറിസ്റ്റ് സ്ഥലങ്ങളെ നാലാമതൊന്നാക്കാം അങ്ങനെ പല രീതിയിൽ ഇതിനെ ഗ്ലാസിഫൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും അതിനും രീതിയിൽ അത് വയ്ക്കുക എന്ന് പറയുന്നത് അതൊരു ടാസ്ക്ക് ആണ് അത് അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികളുടെ സ്കില് ഡെവലപ്പ് ചെയ്യും അപ്പം ആ രീതിയിലത് ചെയ്യാനായിട്ട് പിള്ളേർക്ക് പറഞ്ഞുകൊടുക്കുക ഇത് ഇത് തന്നെ എല്ലാ ഇതിലും അങ്ങനെ ഏത് കാറ്റഗറിയാണെങ്കിലും ഇത്തരം ഒരു ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചുമ്മാ എന്തെങ്കിലും ചെയ്യുന്നു എന്തിനെങ്കിലും വേണ്ടി ശേഖരിക്കുന്നു എന്നതിന് ആർക്ക് വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയുന്ന ഒരു ഇതേ ഉള്ളൂ അങ്ങനെയല്ല കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഹോബികളെ കാണാനും അവർക്ക് വിജ്ഞാനവും വിനോദവും ഒരുപോലെ കൊടുക്കുന്നതാകാനും സഹായിക്കുന്നത് ഈ രീതിയിൽ സിസ്റ്റമാറ്റിക്ക് ആയിട്ട് ചെയ്യുമ്പോഴാണെന്നാണ് തോന്നിയിട്ടുള്ളത്